നമ്മുടെ പ്രദേശത്ത് കണ്ട് വരുന്നൊരു കളി എന്ന് പറഞ്ഞാൽ കല്ല് കളി കല്ല് കളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കല്ലുണ്ടാക്കി എടുത്തിട്ട് കയ്യിലോട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എറിഞ്ഞിട്ട് പിടിക്കും അപ്പം എത്ര കല്ല് പിടിക്കുന്നോ അങ്ങനെയൊരു കളിയാണ് കല്ല് കളി പിന്നെയുള്ളത് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഓട്ടം ചാട്ടം കളി എന്നൊക്കെ പറയും ഞാൻ ഒരു കുഴി ഒരു വരയൊക്കെ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ തുള്ളിച്ചാടും പിള്ളേരൊക്കെ ചാടിച്ചാടി പോയി കളിക്കുന്ന കളിയാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ള കളി എന്ന് പറഞ്ഞാൽ കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്ത് പന്ത് ഇട്ടിട്ട് കാൽ കൊണ്ടെടുത്ത് എറിയുന്ന കളിയാണ് പിന്നെ നല്ലത് നോക്കിയാൽ പിന്നെ പറമ്പിൽ ഫുട്ബോളാണ് പിന്നെ കളിക്കുന്നത് പിന്നെയുള്ള കളി എന്ന് പറഞ്ഞാൽ ഈ ഈർക്കിളിയിൽ കൊച്ചങ്ങയൊക്കെ വെച്ചിട്ട് ഒരു വണ്ടിയുണ്ടാക്കി അത് ഉരുട്ടി കളിക്കും പിന്നെയുള്ള കളി എന്ന് പറഞ്ഞാൽ പിന്നെ ഓട്ടം ഓട്ടം ഓടിക്കളി ഒളിച്ച് കളി അങ്ങനെ പിന്നെ ചാടിക്കളി ചാടിക്കളി പിന്നെ പിന്നെ അങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ വണ്ടി ഓടിച്ച് കളി പിന്നെ കുഴി കുത്തിക്കളി കല്ലെറിഞ്ഞ് കളി ഉന്നം നോക്കി എറിയുന്നത് എന്നൊക്കെ പറഞ്ഞ കളി പിന്നെ രണ്ട് പേരാണെങ്കിൽ കച്ചിയും കോലും പിന്നെ ഈ ഗോലി സർബത്തൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഗോലി കൊണ്ടുള്ള ഒരു കളി പിന്നെ ക്രിക്കറ്റ് കളി പിന്നെ എങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ മരത്തിൽനിന്ന് ഓല എടുത്തിട്ട് അതിൽനിന്ന് പഴയ സാധനങ്ങൾ ഉണ്ടാക്കി ബോളൊക്കെ ഉണ്ടാക്കി ഓലയിൽനിന്ന് എടുത്ത് ബോളൊക്കെ ഉണ്ടാക്കി ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു പിന്നെ പിന്നെ പ്രേതക്കളി പിന്നെ കണ്ടുപിടി കളി പിന്നെ നീ പോ മോനെ ദിനേശാ എന്നുള്ളൊരു കളി പിന്നെ അങ്ങനെ തുടങ്ങി പല ഭയങ്കര ആശയമുള്ള ചില കളികൾ